കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മലയാളഭാഷയ്ക്ക് വളരെ വളരെ മൂല്യം നൽകുന്നൊരു നാട്ടുകാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് കാരണം മലയാളഭാഷ സ്വന്തം മാതൃഭാഷയായി കരുതിയിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരുന്നു ഒരു കഴിഞ്ഞ വർഷം വരെ നമ്മുടെ അല്ല കഴിഞ്ഞ ഒരു കാലഘട്ടം വരെ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കാലഘട്ടം മാറുന്തോറും കാലം മാറുന്തോറും മലയാളഭാഷയെ തന്നെ മറക്കുന്നൊരു സമൂഹാമാണ് ഇപ്പം ഞാനടങ്ങുന്ന സമൂഹടക്കം അങ്ങനെയാണ് മലയാളഭാഷ നമ്മൾ മറക്കുന്നത് വേറെ വേറെ പുതിയ ഭാഷകൾ പഠിച്ച് പുറത്തേക്ക് പോകാനും ഇപ്പോൾ ഐ എൽ ടി എസ് പഠിച്ച് പുറത്തേക്ക് പോകാനും ജർമ്മൻ പഠിച്ച് പുറത്തേക്ക് പോകാനും എല്ലാം നോക്കുന്നവരാണ് ഭാഷയ്ക്ക് വലിയ പ്രധാന്യമൊന്നും കൊടുക്കുന്നില്ല നാട്ടിനോ അല്ലേൽ കേരള നാടിനൊ ഭാഷയ്ക്കോ ഒന്നിനും പ്രാധാന്യം നൽകാണ്ട് തൻറ്റെ ജീവിതം തങ്ങളുടെ ജീവിതത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരു തല മുറയാണ് ഇപ്പം പറയുവാണെങ്കിൽ നമ്മുടെ വയനാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്കൂളുകളിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരിതാണ് ഇംഗ്ളീഷ് മീഡിയം സ്കൂളുകളിൽ മലയാളംന്ന് പറഞ്ഞ സബ്ജെക്റ്റ് പോലും പഠിപ്പിക്കാണ്ട് എല്ലാം ഇംഗ്ലീഷ് മാത്രം പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ വരെയുണ്ട് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും ഉദാഹരണംന്ന് പറയാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ മാസം ഞാനൊരു വാർത്ത കണ്ടു വർത്തയാണിത് അതായത് ഡെൽഹിയിൽ ഡെൽഹിയിൽ മലയാളം എന്നൊരു സബ്ജെക്റ്റ് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം മലയാളം നമ്മുടെ കേരള നാട്ടിലെ മലയാളികൾക്ക് മലയാളികൾ എല്ലാവരും എന്താണ് ചെയ്യുന്നത് മലയാളംന്ന് പറയുന്ന ഭാഷയെ ഒഴിവാക്കിയിട്ട് പിള്ളേരെ ഇംഗ്ലീഷ് മാത്രം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഡെൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാള ഭാഷ അത്രക്ക് ഉൾക്കൊണ്ട് അതിൻറ്റെ പ്രാധാന്യം മനസ്സിലാക്കി മക്കളെ വരെ എന്താണ് പഠിപ്പിക്കുന്നത് മലയാളം പഠിക്കാൻ തുടങ്ങുവാണ് അതൊക്കെ മാറി വരുന്നൊരു തല മുറേൻറ്റെ പങ്ക് ഒരു ഒരു വ്യത്യാസം തന്നെയാണ് മലയാളഭാഷക്ക് ഒരു നല്ല പങ്ക് ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു നമുക്കിടയിൽ ഇത്രേം കാലം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നെന്ന് പറയുമ്പോൾ അത് മാറി മാറി വരുവാണ് എല്ലാവരും ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറെ ഭാഷകളിൽ കൂടെ ഒക്കെ കടന്ന് പോകുന്നവരാണ് തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മറ്റുള്ള ഭാഷകളികളിലേക്ക് കടന്ന് പോകുന്നവരാണ് നമ്മൾ മലയാളികൾ ഇന്നിപ്പോൾ മലയാളത്തിന് വലിയ പ്രധാന്യന്നും നൽകാണ്ട് ഇന്നും ഇന്നും വേറെ ഭാഷകൾക്ക് പ്രാധാന്യം നൽകി മലയാളഭാഷയെ ഇല്ല എന്താണ് പറയുന്നത് ഇല്ല ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് പറയുന്നത് ഇനിയിനി അങ്ങോട്ടങ്ങോട്ടേക്ക് പോകുമ്പോൾ മലയാളഭാഷാന്ന് പറഞ്ഞൊരു ഭാഷ പോലുമില്ലാണ്ട് അവസാനം ഇംഗ്ലീഷ്കാരുടെയും ജർമ്മൻ കാരുടെയും ഒരു നാടായി മാറാനാണിനി നമ്മുടെ നാടിന് സാധ്യത